നമുക്കിപ്പം മത്സ്യബന്ധനത്തിനെ കുറിച്ച് അതായത് പറയാനാണെങ്കിൽ ഇപ്പം മത്സ്യബന്ധനമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ ജീവൻ വരെ പണയം വച്ചിട്ടുള്ള അതായത് ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മത്സ്യബന്ധനം അപ്പം അത് ആ ഒരു യാത്ര മത്സ്യബന്ധനത്തിന് കടലിലേക്കുള്ള ഒരു നീണ്ട യാത്ര ശരിക്കും മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളോളം ചിലപ്പോൾ പത്ത് പതനഞ്ച് ദിവസങ്ങളിൽ വരെ ചിലപ്പോൾ അവര് കടലിൽ തന്നെ ജീവിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രയാണത്തിൻ്റെ ഇതില് പിന്നെ കിട്ടുന്നതായിരിക്കും ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ അപ്പം അതൊരു വിജയകരമായിട്ട് തീരണമെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ച് ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെതായ അവര് ഉദ്ദേശിച്ച പോലെ പൈസ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ മാത്രമേ അവർക്ക് അതായത് അവർക്ക് അതാണല്ലോ അവരുടെ ഒരു ഉപജീവനമാർഗ്ഗം അപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവര് അതായത് ഒരുപാട് ചാകര കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഒരുപാട് ആഘോഷിക്കാറും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പരസ്പരം അതായത് ചാകരയൊക്കെ കിട്ടുന്ന മീനിനെ അതായത് വലിയ് വലിയ മീനിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവര് ചിലപ്പോൾ മുദ്രാവാക്യങ്ങളും പാട്ടുകളും ഒക്കെ പാടിയ ഒരുപാട് സന്ദർഭങ്ങൾ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്